എനിക്ക് പൂന്തോട്ട പരിപാലനം ചെറുപ്പം മുതലേ എനിക്ക് വളരേ ഇഷ്ടമുള്ളൊരു കാര്യമാണ് ചെടി എവിടെക്കണ്ടാലും അത് ഞാൻ വാങ്ങിച്ച് കൊണ്ട് വന്നിരുന്നു കാരണം അതെനിക്ക് വളരേ ഇഷ്ടമുള്ളൊരു സംഗതിയാണ് റോസാച്ചെടിയും ചെണ്ടുമല്ലിയും കുറ്റി മുല്ലയുമൊക്കെ പണ്ടുമുതലേ എൻ്റെ വീട്ടില് വളർത്തുന്നൊരു ചെടികളാണ് പത്തണിമുല്ലയും ഡബിൾ റോസും എൻ്റെ പൂന്തോട്ടത്തെ മാറ്റ് കൂട്ടുന്നതാണ് പൂന്തോട്ടത്തില് വരുന്ന പുഴുക്കള് ചാഴികള് എന്നീ ജീവികളെ പ്രതിരോധിക്കുന്നത് പുകയിലക്കഷായമോ സോപ്പ് ലായനിയോ ഒക്കെ ഉപയോഗിച്ചിട്ടാണ് മാത്രമല്ല എൻ്റെ ചെടികൾക്ക് ജൈവവളം ഉപയോഗിക്കാനാണ് എനിക്ക് കൂടുതലിഷ്ടം ചാണകവും കോഴിക്കാഷ്ടവും കമ്പോസ്റ്റും തുടങ്ങിയവയൊക്കെയാണ് പ്രധാനമായി ഞാന് ഉപയോഗിക്കുന്നത് ചെടിച്ചട്ടികളിലാണ് ഞാന് ചെടികളൊക്കെ നടാറുള്ളത് വലിയ വലിയ ചെടികളൊക്കെ നിലത്തും നടും ഡബിൾ റോസ് പോലുള്ള ചെറിയ കുഞ്ഞിച്ചെടികളൊക്കെ നിലത്ത് തടംകെട്ടി അവിടെ മണ്ണിട്ട് അതിൽ നടുന്നതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം എന്നാലേ കാണാനൊരു ഭംഗി ഉണ്ടാവൂള്ളൂ